എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തു മൃഗമെന്ന് പറയുന്നത് നായയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വളർത്താൻ ആ ആഗ്രഹിക്കുന്നതും ഒരു നായയെയാണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് നായക്കുട്ടികളെ അവർ അവരെത്രത്തോളം ലോയൽ ആണ് അവരുടെ യജമാനനോടെന്ന് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു ഒരു പീസ് ബിസ്ക്കറ്റ് കൊടുത്താൽ മതിയാവും അവർ ജീവിതകാലം മുഴുവനും ആ ഒരു സ്നേഹം ഒരുപാട് സ്നേഹം കാണിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു നായ്ക്കുട്ടികളോടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നിയത് അതുപോലെ തന്നെ ഇവർ ഭയങ്കര ക്യൂട്ട് ആണ് പിന്നെ എന്ത് ഒരു ജോലി പറഞ്ഞാൽ ഒരു പത്രം എടുത്തു കൊണ്ട് വൻ പ വരാൻ പറഞ്ഞാൽ അവരെടുത്തിട്ട് വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് നായകളെ വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കരിഷ്ടമാണ് ഇത് വരെ വളർത്തിയിട്ടില്ല ഞാൻ ഒരു നായക്കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്